എറണാകുളം ജില്ലയിൽ ഒരുപാട് സ്ഥാപനങ്ങളും കൃഷി ഉൽപന്നങ്ങളുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ സേവനം ചെയ്യുന്ന മേഖലകളും കൃഷി മേഖലകളും എല്ലാം ഉണ്ട് അവിടെ എല്ലാം കൃഷി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ കയർ പിന്നെ ജാതിക്ക നെല്ല് ഇങ്ങനെ ഉള്ള ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അവടെ ഒക്കെ സേവന മേഖല ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലിയും കൊടുത്ത് അത് അ ങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഉൽപ്പന്നങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തേനീച്ച പിന്നെ ഗ്രാമ്പു അങ്ങനെ തൈലങ്ങൾ എടുക്കുന്നത് അത് അങ്ങനത്തെ ഉൽപ്പന്ന സ്ഥാപനങ്ങളുണ്ട് പിന്നെ ഞങ്ങളുടേതായ മേഖലയിൽ ഒരു സേവാശ്രമം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു ഒരുപാട് തൊഴിലാളികളൊക്കെ അവിടെ എടുക്കുന്ന അവിടെ മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി അരിപ്പൊടി അങ്ങനെ ഭക്ഷ്യാവശ്യത്തിനുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കി പൊടിപ്പിച്ച് കുറേ പേർക്ക് അവിടെ ജോലി കൊടുത്ത് അത് പാക്ക് ചെയ്ത് അങ്ങനെ സ്ഥാപനങ്ങളിൽ കൊടുക്കുകയും അതും ഉണ്ട് അങ്ങനെ എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ വലിയ ഒരു വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വലിയ ഒരു ഇതാണ് വ്യവസായ ശാലകളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കയർ വ്യവസായം പ്രധാനപ്പെട്ട ഒരു ഇതാണ്